എനിക്ക് കിട്ടിയിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്രാദേശിക സ്കൂളുകളിൽ പ്രവേശനത്തിനുള്ള നടപടി ക്രമം എന്താണ് ഏതൊക്കെ രേഖകൾ ഹാജരാക്കണം ഫീസുണ്ടോ അതോ സൗജന്യമാണോ പ്രാദേശിക സ്കൂളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റളവിലുള്ള നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ കാണുന്ന സ്കൂളുകളൊക്കെയാണ് നമ്മുടെ പ്രദേശത്തുള്ള സ്കൂളുകളൊക്കെയാണ് പ്രാദേശിക സ്കൂളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ സാധാരണ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന നടപടിക്രമങ്ങൾ തന്നെയാണ് അവിടെയുമുള്ളത് അതായത് ഏതു ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കേണ്ടത് അപ്പോൾ അതിനു മുന്നേ വരെയുള്ള ക്ലാസ്സുകളിലെ ഒരു എന്താ പറയുക ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുക പിന്നെ ഏതൊക്കെ രേഖകൾ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെയൊരു അറിവില് ആധാർ കാർഡും പിന്നെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് മാറുകയാണെങ്കിൽ അവിടത്തൊരു അവിടത്തെ ട്രാൻസ്ഫെർ സെർട്ടിഫിക്കറ്റും പിന്നെ ഡോക്യൂമെൻ്റസും കാര്യങ്ങളൊക്കെ വേണ്ടിവരും പിന്നെ ആ ഒരു സ്കൂളിൽ ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻറ്റർവ്യൂ പാസ്സ് ആകേണ്ടി വരും അപ്പോൾ ഈയൊക്കെ ഇങ്ങനത്തെ രേഖകളും ഈയൊക്കെ ഈ ആവിശ്യങ്ങളൊക്കെയാണ് ഒരു സ്കൂളിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ പ്രാദേശിക സ്കൂൾ പ്രവേശനയ്ക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ആ പിന്നെ എയിഡഡായിട്ടുള്ള സ്റ്റേറ്റ് സ്കൂളുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഫീസ് കുറവായിരിക്കും ആ പിന്നെ നമുക്ക് അവിടെ അവിടെ ഉച്ചഭക്ഷണം ലഭിക്കും പിന്നെ ചിലപ്പോൾ അവർക്ക് അവരുടെ യൂണിഫോമും പുസ്തകങ്ങളൊക്കെ അവർക്ക് എയിഡഡായതുകൊണ്ടു തന്നെ അവിടുന്ന് അവർക്ക് ഫ്രീയായിട്ട് ലഭിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് പക്ഷെ പ്രൈവറ്റ് സ്കൂളുകൾ നോക്കുവാണെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കൾ അതിന് പൈസ ചെലവാക്കി യൂണിഫോമും ബാഗും പുസ്തകങ്ങളും വായിക്കുക വാങ്ങിക്കേണ്ടി അ അവസ്ഥയുണ്ടാകാം എയിഡഡ് സ്കൂളുകൾ സൗജന്യമായിട്ടാണ് സൗജന്യമായിട്ടാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വിദ്യാഭ്യാസം കൊടുക്കുന്നത് പിന്നെ ചിലപ്പോൾ ചില ചെറിയ ചിലവുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ പൊതുവെ കുട്ടികൾക്ക് സൗജന്യമായിട്ടാണ് എയിഡഡ് സ്കൂളുകൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് പ്രൈവറ്റ് സ്കൂളുകളിൽ ഫീസ് ഓരോ ടെമ് അനുസരിച്ചോ അല്ലെങ്കിൽ മന്തിലി ചിലപ്പോൾ ഫീസുണ്ടാകാം